പ്രായമുള്ളവർ അഥവാ ഈ അധികം വയസായവർ കളിക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ അവർ കളിക്കുന്നത് മെയിനായിട്ട് ചെറുപ്പത്തിൽ കളിച്ചതിൻ്റെ ഒരു അതിനെ തുടർന്ന് ഉള്ളൊരു ഇൻട്രസ്റ്റ് കൊണ്ടായിരിക്കും കളിക്കുന്നത് മെയിൻ ആയിട്ട് ഇത് ഏതൊക്കെ കളികൾ കളിക്കുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഷട്ടില് ഫുട്ബോൾ ഷു മെയിനായിട്ട് ഷട്ടിലാണ് ഷട്ടിൽ ബാഡ്മിൻറൺ ആണ് കളിക്കുന്നത് അത് അവർ അത് ഒരു പ്രൊഫഷണൽ രീതിയിലവർ ചെറുപ്പത്തിൽ കളിച്ചിട്ടുണ്ടാവണം അത് അതിൻറ്റൊരു ഫലമായിട്ടായിരിക്കും അവർ വയസാകുമ്പോഴും അതുതന്നെ കളിക്കുന്നത് അത് അവർക്ക് ആ കളിയോടുള്ളൊരു ഇഷ്ടവും ബഹുമാനവുമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇതുപോലുള്ള ഇൻഡോർ സ്റ്റേഡിയങ്ങൾ പ്രായമായവരെ സ്ഥിര സ്ഥിര സ്ഥിരകാഴ്ചയാണ് അവർ അവരവിടെ ഉണ്ടാവും ഒരു പാഷണേറ്റായിട്ടുള്ള ഒരാ ആ ഒരു ഒരാളാണെങ്കിൽ അവർ വയസാകുമ്പോഴും അതുതന്നെ കളിക്കാനുണ്ടാവും ഇപ്പം എൻ്റെ വീടിനടുത്തു ഇങ്ങനെയൊരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട് അപ്പം അത് എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് വയസായിട്ടുള്ള ആൾകാർ ഇങ്ങനെ വന്ന് കളിക്കുന്നത് അവർ പ്രായത്തിൻ്റെ ഇത് പോലും മറന്ന് അവർ ഇങ്ങനെ കളിക്കുന്നത് എന്നുവെച്ചു കഴിഞ്ഞാൽ അവർക്ക് അത്രയും ഇഷ്ട്ടമുള്ളത് കൊണ്ടായിരിക്കണം ഷട്ടിലാണ് ഞാൻ പറയുന്നത്